ആദ്യം തന്നെ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിംഗ് വേണം ആ യാത്രയ്ക്ക് അതുപോലെത്തന്നെ പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ യാത്ര ചെയ്യേണ്ടൊരു സ്ഥലമാണെങ്കിൽ യാത്ര രണ്ട് ദിവസമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം ഫസ്റ്റ് ഡേ കൂടുതൽ റൈഡിങ്ങിനും സെക്കൻഡ് ഡേ കുറച്ചും അതുപോലെത്തന്നെ നമ്മൾ യാത്ര ചെയ്ത് അവിടെ എത്തിയിട്ട് താമസ സൗകര്യം നോക്കാതെ അതിന് മുമ്പ് തന്നെ താമസ സൗകര്യം നോക്കി വയ്ക്കണം നമ്മൾ നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൈക്ക് ഫുൾ കണ്ടീഷൻ ആയിരിക്കണം ഒരു കംപ്ലയിന്റും ഇല്ലാതെ അത് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു വർക്ക് ഷോപ്പിൽ പോയിട്ട് അതിൻ്റെ എല്ലാ കണ്ടീഷനും കറക്ട് ആക്കുക അതുപോലെത്തന്നെ നല്ലൊരു ഹെൽമെറ്റ് വേണം ഓയില് ക്യാരി ചെയ്യണം റൈഡിംഗ് ജാക്കറ്റ് റൈഡിംഗ് ഗ്ലൗസ് ബൂട്ട്സ് അതുപോലെത്തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്